സെൽപ്പ് ഹെൽപ്പ് ഗ്രൂപ്പുകളെപ്പറ്റി വളരെ നല്ല അഭിപ്രായമാണ് അത് സ്ത്രീകളെ വളരെയധികം സപ്പോർട്ടേയ്യ്ന്നൊണ്ട് ഈ കാലഘട്ടത്തില് ഏറ്റവും കൂടുതല് സ്വയംതൊഴിൽ കണ്ടെത്തുന്നതില് സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ബാങ്കുകള് മറ്റ് സർക്കാർ സ്ഥാപനങ്ങള് സർക്കാർ ഇതര സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് സ്വയംതൊഴിലൊരു അവർക്ക് ലോണ് മറ്റ് സംരംഭങ്ങൾ തുടങ്ങാനാവശ്യമായ സാമ്പത്തികം അതുപോലെ തന്നെ അഭിപ്രായം അവരെ അതിൻ്റെ പ്ലാനുകള് ഇതൊക്കെയും നൽകിക്കൊണ്ട് വളരെയധികം സപ്പോർട്ടീവ് ആണ് ഈ കാലഘട്ടത്തില് അത് സ്ത്രീകൾക്ക് മുന്നോട്ട് വരുന്നതിനും അവിടെ ഒരു തൊഴിൽമേഖല കണ്ടുപിടിക്കുന്നതിനും അതുപോലെതന്നെ ഒരു സ്വയംതൊഴിൽ സംരംഭം ഉണ്ടാക്കുന്നതിനും ഒക്കെ സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യവും കൊടുത്തുകൊണ്ടാണ് സർക്കാരുകൾ നമ്മളുടെ സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെതന്നെ അതിനുവേണ്ടുന്ന നിർദ്ദേശങ്ങള് ക്യാമ്പുകള് ഒക്കെ നമ്മുടെ വില്ലേജ് അടിസ്ഥാനത്തില് ജില്ലാ അടിസ്ഥാനത്തില് ഒക്കെ നമുക്ക് നൽകുന്നുണ്ട് അത് നമ്മള് വളരെയധികം സ്ത്രീകൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് അവർക്ക് സ്വയം ഒരു തൊഴിലിലൂടെ സമ്പാദിക്കുക അതുപോലെ തന്നെ കുടുംബം നോക്കുവാനുള്ള ആ ഒരു വരുമാനം കണ്ടെത്തുക ഇത് വളരെയധികം സ്ത്രീകളെ സംബന്ധിച്ചോളം ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചോളം വളരെയധികം പ്രയോജനമുള്ളതാണ് അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഇങ്ങനെയുള്ള തൊഴിൽ മേഖലകളിലേക്ക് വരുന്നതിനും അതിനെ പ്രോത്സാപ്പിക്കുന്നതിനും താലൂക്കടിസ്ഥാനത്തിലൊക്കെ ഓരോ സ്ഥാപനങ്ങളുണ്ട് പിന്നെ അതുപോലെ യുവജന ക്ഷേമകാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ മറ്റു സംഘടനാ പ്രവർത്തനങ്ങളൊക്കെയുണ്ട് ഇതെല്ലാവരും ഇപ്പോള് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് പൊതു ഇടങ്ങളിലായാലും എല്ലാം സ്ത്രീകൾക്ക് വേണ്ടുന്ന തൊഴിലിനുവേണ്ടി ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊടുക്കുന്നതിനൊക്കെ യുവജന സംഘടനകളും ഒക്കെ തയാറാണ് അതുപോലെതന്നെ ഇതുപോലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളൊക്കെയുണ്ട് അവയൊക്കെ വളരെയധികം പ്രയോജനമാവുംവിധമാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മള് എവിടെനിന്നാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി അത് സ്ത്രീകൾ മുന്നോട്ട് വരികയാണെങ്കിൽ അവിടെ തൊഴിലുകൾക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും അവർക്കത് ജീവിതത്തില് അത് പ്രയോജനമുള്ളതായിത്തീരും